ഞങ്ങളുടെ വീട്ടിൽ കക്കൂസ് ഉണ്ട് ഉള്ളത് കൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് കാരണം രാത് രാത് വീട് വൃത്തിയാവും വീടിൻ്റെ പരിസരം വൃത്തിയായിട്ട് കിടക്കും സ്മെല്ല് ഉണ്ടാവില്ല അത് എന്നും ഞങ്ങൾ വാഷ് ചെയ്ത് തെ കഴുകി വൃത്തിയാക്കിയാണ് ഉപയോഗിക്കാറ് പിന്നെ ഞങ്ങളുടെ കുട്ടികളെ ടോയിലെറ്റിലിരുത്തി ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് ശീലമാക്കാൻ പറ്റും പിന്നെ പ്രായമുള്ളവർക്കും ടോയിലെറ്റിൽ പോവാൻ എളുപ്പമാണ് ഒന്ന് യൂറോപ്പിയൻ ക്ലോസെറ്റ് ഉണ്ട് പൊതുവായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ വീട്ടില് മുതിർന്നവർക്കും ഉപയോഗിക്കാൻ വേറെയും അങ്ങനെ ത്രീ ടോയ് കക്കൂസാണ് മൂന്ന് കക്കൂസാണ് ഞങ്ങളുടെ വീട്ടിൽ ഉള്ളത് യാ അത്കൊണ്ട് ഒത്തിരി ആരോഗ്യപരമായ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ത നേരിടാൻ കഴിയും കാരണം ടോയിലെറ്റിൽ പോയി വന്നാൽ അപ്പഴെ കൈയ്യും കാലും ഒക്കെ സോപ്പിട്ട് കഴുകി വൃത്തിയായി നടക്കാം അത് പ്രത്യേകിച്ച് ഫ്ലഷ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് സ്മെല്ല് മറ്റുള്ളതൊന്നും നമുക്ക് വരുന്നില്ല അതൊര് വാതിലടച്ചു ആയതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് നമ്മളുടെ വീടിനോട് ചേർന്നതായത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ കക്കൂസ് ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കക്കൂസ് ഇല്ലെങ്കിൽ വെളിയിൽ സ്ഥലങ്ങളിലും പുരയിടത്തിലും വീടിൻ്റെ അടുത്തും പോ എല്ലാമായിട്ട് കുറഞ്ഞ സ്ഥലം ഉള്ളവരായിരിക്കും അപ്പം അങ്ങനെ ഒക്കെ പോയി ഇരിക്കുമ്പോൾ വീടും പറമ്പും ഒക്കെ വൃത്തികേടായിരിക്കും പിന്നെ അതിലൂടെ നടക്കുന്ന ആളുകൾക്ക് സാംക്രമിക രോഗങ്ങൾ പിടിപ്പെടും കൊക്കപ്പുഴു വയറ് വയറിളക്കം അതുപോലുള്ള അസുഖങ്ങൾ ഈ മറ്റുള്ളവർ അതിലെ പാസ് ചെയ്യുമ്പോൾ നടന്ന് പോകുമ്പോൾ അവർക്ക് പിടിപ്പെടും പിന്നെ കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും അതി ൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ കുടിവെള്ളത്തിലെത്തും ഒരുപാട് ആളുകളുടെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് കക്കൂസ്സില്ലാത്ത ഇല്ലാത്ത കാരണം കൊണ്ട് ഇല്ലെങ്കിൽ വെളി സ്ഥലത്ത് പോയിയോ യൂസ് ചെയ്താൽ ഇന്നത്തെ ഒര് സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒര് കാര്യമാണ് വളരെ പുറത്ത് പോയി ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമൊക്കെയാണെങ്കിൽ അങ്ങനെ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ടിനെ നേരിടണം പിന്നെ ഈ നമ്മള് കക്കൂസിൽ നിന്ന് നമ്മള് പുറത്ത് പോയി കളയുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ കോഴി പട്ടി ഒക്കെ ചിക്കി ചികഞ്ഞ് എല്ലായിടവും ആ കോഴി വന്ന് അകത്ത് കയറുമ്പോൾ നമുക്ക് സ്മെല്ല് വരും അത് കഴിച്ചിട്ട് വരുന്ന പട്ടി നമ്മുടെ അടുത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം കക്കൂസ് ഇല്ലാത്ത ഒര് സാഹചര്യം ഞങ്ങൾക്ക് ചിന്തിക്കാനെ പറ്റുന്നില്ല എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കക്കൂസുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതം കക്കൂസില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അത്രയും വൃത്തിഹീനമായ രീതിയിലാണ് അത് പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലങ്ങളിൽ ഇപ്പോളെനിക്ക് അറുപത് വയസ്സായി എൻ്റെ ഒക്കെ ഒര് കുട്ടിക്കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഇങ്ങനെ പറമ്പുകളിൽ കൂടോടും അപ്പറത്തെ ഇരി വീട്ടിലിരിക്കുന്നവർ കാണും അപ്പറത്തിരിക്കുന്ന അ ഇത് ഇതെന്തായാലും ക എവിടെയെങ്കിലും കളഞ്ഞല്ലെ പറ്റുകയുള്ളു അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം ഞങ്ങള് പലപ്പോഴും നേരിട്ടിട്ടുണ്ട് പിന്നെ അതിനാൽ തന്നെ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ അന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തേലധികമായി വയറിളക്കം എവിടെ ആരെങ്കിലും അതിലൂടെ ചവിട്ടിയും ആ അതിലൂടെ അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പോയി കിണറ്റിലോ വ അവിടെങ്കിലും ഒക്കെ വന്ന് യൂസ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് വയറിളക്കം വരും മഞ്ഞപ്പിത്തം അതുപോലുള്ള സാംക്രമിക രോഗങ്ങള് പിടിപ്പെടുകയും വെള്ളത്തിൻ്റെ ശുദ്ധിയില്ലായ്മയിൽ നിന്നാണ് ഒരുപാട് രോഗങ്ങൾ പിടിപ്പെടുന്നത് അതുപോലെ കക്കൂസ് വീട്ടിലില്ലാത്തത് ഏറ്റവും ബുദ്ധിമുട്ടായ ഒര് കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും മനുഷ്യകുലത്തിന് വേണ്ടിയത് സുരക്ഷിതമായ വീടും സുരക്ഷിതമായ കക്കൂസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്